ഹലോ അനഘേന്റെ അമ്മയാണോ ആ ഞാനിവിടെ പിന്നെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നതാണേ അവൾക്ക് എന്തോ പിന്നെ ഭയങ്കര ഒരു രണ്ട് പ്രാവശ്യം അവള് ഭക്ഷണം കഴിച്ചതിന് പിന്നെ രണ്ട് പ്രാവശ്യം ഛർദ്ദിച്ചു അപ്പം അപ്പം ഇവിടുത്തെ ഫുഡ് അല്ല വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുത്ത് വിട്ട ഫുഡ് ആണ് കഴിച്ചത് പക്ഷെ എന്തോ ഛർദ്ദിച്ചു രാവിലെ തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു ആഹാ

ആ ഞാന് ഞാന് ബാം ഒക്കെ പുരട്ടി കൊടുത്തു ഞാന് ബാം ബാം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാരസെറ്റമോള് ഞങ്ങളും കൊടുത്തു ഒരെണ്ണം കൊടുത്തു അപ്പം തലവേദന കുറച്ച് മാറി എന്ന് പറഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് അല്ല ഒരു പിരീഡ് അത്യാവശ്യം ആക്ടീവ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചപ്പോൾ പിന്നെയും ഛർദ്ദിച്ചു ഇത് മൈഗ്രേനിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ല അല്ലേ ആ പറഞ്ഞു ആ ആ അത്യാവശ്യം അതായത് പഠിക്കണം എന്നാലും അത് അധികം അതിനുമാത്രം അവരെ സ്ട്രൈന് ചെയ്യിപ്പിക്കേണ്ട കാരണം എന്തെങ്കിലും പരീക്ഷേന്റെ സമയത്ത് വയ്യാണ്ടായി കഴിഞ്ഞാല് നമുക്കത് അറ്റന്ഡ് ചെയ്യാന് പറ്റില്ലല്ലോ

ആ അവളിവിടെ സ്റ്റാഫ് റൂമിലുണ്ട് ഇവിടെ കിടക്കുവാണ് അപ്പം പിന്നെ കുറച്ച് നേരം ആയി ഞാനൊന്ന് വിളിച്ചു നോക്കിയതാണ് ഇനി ഇപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ നിങ്ങള് ഒന്ന് വരൂ ആ ആ അങ്ങനെ ആ ഓക്കെ എന്താണെന്ന് അറിയുവോ അത് വരെ ഞാന് ഇവിടെ സ്റ്റാഫ് റൂമിൽ ഇരുത്താം എന്താണെന്ന് അറിയുവോ ഇനി ഇപ്പം എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഞാന് വിളിക്കാം പറയാന് പറ്റില്ലല്ലോ അറിയില്ലല്ലോ ഭക്ഷണം കഴിച്ചിരുന്നു ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഛർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്

ആ എന്നാൽ ഒന്ന് വേഗം വരാന് നോക്ക് കേട്ടോ എന്താണെന്ന് അറിയുവോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിലോ തലവേദന ഉണ്ട് പിന്നെയും തലവേദന ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത് ആ ആ എന്നാൽ ആയിക്കോട്ടെ എന്നാൽ കുറച്ച് വേഗം വരാൻ നോക്ക് ഒരു മൂന്നുമണി ഒക്കെ ആകുമ്പോഴത്തേനും എത്തില്ലേ എന്തായാലും ആ എന്നാൽ ഓക്കെ എന്നാൽ ഓക്കെ ആ